മലയാള ഭാഷ എന്നത് നമ്മുടെ അമ്മയാണ് ഏതൊരു മലയാളിയും എവിടെ ചെന്നാലും ലോകത്തിൻ്റെ ഏതു കോണിൽ ചെന്നാലും മലയാളം അറിയില്ല എന്ന് പറയുന്നത് അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും മടയത്തരമാണ് അത് അമ്മിഞ്ഞപ്പാലിനോളം തുല്യമാണ് നമ്മുടെ മലയാളം ഭാഷ നമ്മളേതു രാജ്യത്തു പോയാലും നമ്മുടെ ഭാഷ ഒരിക്കലും നമ്മൾ മറക്കരുത് ഏതു ഭാഷയെ പോൽ താരതമ്യം ചെയ്താൽ പോലും നമ്മുടെ മലയാള ഭാഷയിൽ കവിഞ്ഞ് ഒരു ഭാഷയും വരില്ല നമ്മുടെ അമ്മയാണ് നമ്മൾ നമ്മുടെ ജീവനാണ് നമ്മുടെ എല്ലാമാണ് മലയാളം മലയാള ഭാഷയും നമ്മൾ ആരുടെ മുൻപിലും നമ്മൾ തല കുനിച്ചു നിൽക്കരുത് നമ്മളുറ്റെ മലയാള ഭാഷയെ നമ്മൾ തള്ളി പറയരുത് ഏതു രാജ്യത്ത് പോയിക്കോട്ടെ എത്ര സ് പണം സമ്പാദിച്ചോട്ടെ എന്തു തരം ജോലി ആയിക്കോട്ടെ ഒരിക്കലും നമ്മൾ നമ്മുടെ മലയാള ഭാഷയെ ഒരിക്കലും നമ്മൾ പുറം തള്ളുകയോ അല്ലെങ്കിലെതിർത്തു പറയുകയോ ചെയ്യരുത് മലയാളം മണ്ണിലാണ് നമ്മൾ ജീവിക്കുന്നത് അത് ലോകത്തെ നമ്മൾ മ ഭാഷയിലൂടെ കാണിച്ചു കൊടുക്കണം